ആ വാർത്താ ചർച്ചകള് കണ്ടിട്ടുണ്ട് അപ്പപ്പോള് ഹിറ്റായിട്ട് നില്ക്കുന്ന അല്ലെങ്കില് ഏറ്റവും എന്താണ് പറയുന്നതതിന് ഏറ്റവുമധികം വാർത്താപ്രാധാന്യം നേടുന്നൊരു വാർത്ത അല്ലെങ്കില് ഒരാളെ ഒരു പ്രശസ്തനായൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കില് ഒരു കേസിൽപ്പെട്ടു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു കുംഭകോണം വന്നു അല്ലെങ്കിലൊരു വാഹനാപകടമുണ്ടായി അല്ലെങ്കില് പ്രശസ്തനായൊരു വ്യക്തി മരിച്ചു ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങള് ഓരോരോ ദിവസങ്ങളിൽ വരുമല്ലോ അതനുസരിച്ചാണ് വാർത്താ ചാനലുകാരുടെ ഒരു ദിവസം അപ്പം ഒരു വാർത്ത ചാനലുകാര് ഏറ്റെടുക്കുന്ന ആ വാർത്ത തന്നെയായിരിക്കും എല്ലാ ചാനലുകാരും ഏറ്റെടുക്കുന്നത് ആ അതില് ആത്മാർത്ഥതയും സത്യസന്ധതയുമുണ്ടെന്ന് തോന്നുന്നില്ല അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ആ കൂടുതലാൾക്കാര് കണ്ട് അതിൻ്റെ എന്തൊക്കെയോയുണ്ടല്ലോ കൂടുതലാൾക്കാര് കാണുന്നതിനനുസരിച്ച് അവരുടെ വരുമാനം വർദ്ധിക്കുകയെന്നുള്ളതല്ലാതെ ഈ സമൂഹത്തോട് പ്രത്യേകിച്ചൊരു പ്രതിബദ്ധതയൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല എന്നിരുന്നാല്ത്തന്നെയും വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് ഈ ചാനലുകാര് നമ്മുടെ മുന്നിലെത്തിക്കുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞുകഴിഞ്ഞാല് മറ്റ് പുറംലോകവുമായിട്ട് സമ്പർക്കമില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് ആ അത് വളരെ നല്ലൊരു കാര്യമായിട്ടവർക്ക് തോന്നുമായിരിക്കും പക്ഷേ അൽപ്പമെങ്കിലുമൊരു രാഷ്ട്രീയ ചായ്വും ആ ചില ചില കാര്യങ്ങളില് ഇവരുടെ ഒരു എന്താണ് പറയുന്നത് ചില ചില കാര്യങ്ങളില് ഇവർക്ക് രാഷ്ട്രീയ ചായ്വവുകളുണ്ട് ആൾക്കാരുടെ കാര്യത്തില് അവരെ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് ന്യായമായ കാര്യമല്ലെങ്കിൽക്കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് അങ്ങനെ ഒക്കെയാണ് വാർത്തയെ വാർത്തയിലെ ചർച്ചകള് അപ്പോള് ചർച്ചയെന്ന് പറയുന്നത് ഏത് പാര്ട്ടിക്കാരാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്നൊരിത് തെറ്റ് വന്നുകഴിഞ്ഞാല് അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കില് അത് ചെയ്തുപോയത് തെറ്റായെന്നോ അങ്ങനെയൊരിക്കലും സമ്മതിക്കാറില്ല എന്ത് കാര്യം നേരിട്ട് നടന്നയൊരു കാര്യമാണെങ്കില്പ്പോലും അവരതിനെ നഖശിഖാന്തം എതിർക്കുകയും ആ അവരുടെ പാർട്ടിയുടെ ഏതെങ്കിലുമൊരു പാർട്ടിയെ പ്രതിനിധീകരിച്ചായിരിക്കും എല്ലാ ചർച്ചകളിലും ഓരോരുത്തരും വന്നിരിക്കുന്നത് അപ്പം അവര് അവരവരുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കില് എങ്ങനെ അവരുടെ പാർട്ടിയെ നല്ലതാക്കാമെന്നുള്ള രീതിയില് എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കില്പ്പോലും അവരെ മൂടിവെച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസാരരീതിയാണ് നമ്മള് നിലവില് കണ്ടുവരുന്നത് അതിപ്പോള് സത്യത്തിൻ്റെ ഭാഗത്ത് നില്ക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ല ചർച്ചയിൽ പങ്കെടുക്കുന്നവര് പിന്നെ പ്രത്യേകിച്ച് ട്വന്റി ഫോറിലെ ഹാഷ്മി താജ് ഇബ്രാഹിം പുള്ളിക്കാരൻ മുഖം നോക്കാതെ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നവരോട് സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ മാതു പിന്നെ ശ്രീകണ്ഠന് നായര് പിന്നെ സുജയ പാർവതി അങ്ങനെ കുറെ വാർത്താ വായനക്കാരെ നമുക്കറിയാം നിത്യജീവിതത്തില് വാർത്താ ചാനലുകാരെയും വാർത്ത വായനക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ടുപോകാൻ പറ്റുകയില്ല അവര് സെലിബ്രിറ്റികളെ പോലെ അത്രയ്ക്ക് പ്രശസ്തരാണ് പിന്നെ ചർച്ചയിലെ സത്യാവസ്ഥയോട് ഇനിയിപ്പം സത്യം പറയുന്നയാളുണ്ടെങ്കില്ത്തന്നെ അതിനെ സത്യമല്ലാതാക്കാനായിട്ട് മറ്റ് പിന്നെ പാർട്ടിയില് നിന്നു വന്നിരിക്കുന്നവര് പരമാവധി ശ്രമിക്കും അപ്പം സാധാരണക്കാരായ ജനങ്ങള്ക്ക് ഇതില് സത്യമേതാണ് സത്യമല്ലാത്തത് എന്താണെന്നുള്ളൊരു കാര്യത്തില് നല്ല രീതിയില് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽത്തന്നെയും നമ്മുടെ ഈ നാട്ടില് നടക്കുന്ന സംഭവങ്ങള് കാണുമ്പോള് സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആൾക്കാര് വളരെ കുറവാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ചിലരൊക്കെ സത്യസന്ധമായിട്ട് മുന്നോട്ടുപോകാൻ ശ്രമിച്ചാലും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളായതു കൊണ്ട് അവരാരും കൈവിട്ട കളികളൊന്നും കളിക്കാൻ തയ്യാറാകുന്നില്ല ഒരു ചാനലുകാരും മീഡിയാ വണ് എന്നുപറഞ്ഞ ഒരു ചാനല് അങ്ങനെയൊരു പ്രശ്നത്തില്പ്പെട്ട് കുറെന്നാള് അത് പ്രവർത്തിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു സമൂഹമാണ് നമ്മുടേത് എങ്ങനെ രാഷ്ട്രീയക്കാരെ നല്ല രീതിയില് സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ചാണ് ഓരോ ചാനലുകാരുടെയും വിജയമെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ചർച്ചകള് കാണാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് വലിയ താല്പര്യം തോന്നാറില്ല ഇവരുടെ ഒച്ചപ്പാടും ബഹളത്തിന്റെയും ഇടയ്ക്ക് ഒരാള് നിന്ന് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു അതില് വലിയ സത്യസന്ധതയോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ഒരിക്കലുമുള്ളതായിട്ട് കാണാറില്ല എന്നിരുന്നാലും നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും ചർച്ച അതിൻ്റെ വഴിക്ക് പോകും ചാനലുകാരും മുന്നോട്ടുപോകും കാരണം ഇതൊരു ബിസിനസ്സായിട്ട് വളർന്നുകഴിഞ്ഞു ആ അവര് എങ്ങനെ കളർഫുള്ളാക്കാമെന്ന് നോക്കുന്നു അല്ലാതെ സത്യത്തിനും ഒന്നുമല്ല പ്രാധാന്യം അത് നമുക്ക് സാമാന്യ ജനത്തിന് മനസ്സിലാകും പക്ഷേ എന്നും പൊതുജനം കഴുതയെന്ന് പറയുന്നതുപോലെ അവര് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കില് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു നിശബ്ദരായിട്ട് ഒരു വഴിയില്ക്കൂടെ അവര് ജീവിക്കാനുള്ള ബദ്ധപ്പാടിനിടയില് അതങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നു ഇതൊക്കെ ആരെന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും കുറെ കേൾക്കുന്നു കുറെ കേൾക്കാതെ തള്ളിവിടുന്നു ഇതൊന്നും ആരെയും ബാധിക്കാറില്ല ഒരു ചർച്ചകളും പിന്നെ സമൂഹത്തോടെന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കില് നല്ല രീതിയില് പോകാൻ നോക്കുക ചാനലുകാര് സത്യതെ മുറുകെപ്പിടിക്കാൻ ശ്രമിക്കുക സമൂഹത്തോടും ഓരോ മനുഷ്യരോടും കുറെയെങ്കിലുമൊരു ഉത്തരവാദിത്തബോധമുള്ള മനുഷ്യരായി നമ്മള് മുന്നോട്ടുപോകുന്നതല്ലെ എപ്പോഴും നല്ലത്